ആ ഹലോ മാഡം എൻ്റെ പേര് ശീതൾ എന്നാണ് ഞാനൊരു ബ്രോക്കറാണേ എനിക്ക് നിങ്ങളുടെ ആ വഴിയിലുള്ള റോഡിലുള്ള സ്ഥലം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കുന്നതാണേ ഞാന് ഇതുപോലെ ഞാനൊര് ബ്രോക്കറാണ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണപ്പം ഞങ്ങളിങ്ങനെ അതിൻ്റെ സ്ഥലം അന്വേഷിക്കുന്നതിന്റെ ഇടയ്ക്കൊരു റിസോർട്ടിൻ്റെ കാര്യത്തിന് ഒരു സ്ഥലം അന്വേഷിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ സ്ഥലം ആ റോഡില് കണ്ടത് അപ്പോൾ അന്വേഷിച്ചപ്പളാണ് നിങ്ങളുടെ പേരിലുള്ള സ്ഥലം ആണെന്ന് അറിഞ്ഞത് നിങ്ങൾക്കത് കൊടുക്കാൻ താൽപ്പര്യമുണ്ടോ പക്ഷേ ഇപ്പം അത് കൃഷിയും കാര്യങ്ങളും ഒന്നും നടത്തുന്നില്ല അതിങ്ങനെ തരിശ് ഭൂമിയായിട്ട് കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങള് ചോദിച്ചത് ആ നിങ്ങൾക്ക് എന്നേലും കൊടുക്കാനും കാര്യം കാരണം നല്ലൊര് വിലയ്ക്ക് ഞങ്ങൾക്കത് മേടിക്കാനായിട്ട് താൽപര്യമുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്കതിന് പറ്റിയ ആൾക്കാരുണ്ടായിരുന്ന് കാരണം നല്ലൊരു പ്ലോട്ടായിരുന്നു അത് ഞങ്ങളെ സംബന്ധിച്ച്

ഇരുപത് സെൻറ്റ് അപ്പം അതിൻ്റെ പുറകോട്ട് കിടക്കുന്ന ബാക്കി സ്ഥലം ആരുടെയാണ് ചേച്ചി ആരുടെയായിരുന്നു ആ ഓക്കെ അപ്പം മൊത്തത്തിൽ എത്ര വരുവെന്ന് അറിയാമോ കാണുവായിരിക്കും അത് അത് അവർക്കത് കൊടുക്കാനായിട്ട് താൽപ്പര്യമുണ്ടോ നാട്ടിലുള്ളത് തന്നെ ആണോ അത് ഓക്കെ അപ്പം ചേച്ചി അഞ്ച് ലക്ഷം എന്നുള്ളത് കുറച്ച് കൂടുതലല്ലേ കുറച്ചൊന്ന് കുറച്ച് ഒര് നാല് രൂപക്ക് തന്നാലത് ഡീൽ ഇപ്പം ഇരുപത് സെൻറ്റ് ഞങ്ങളെടുത്തോളാമായിരുന്നു നാല് ലക്ഷം രൂപയ്ക്ക്

നല്ല സ്ഥലമായത് കാരണം ഞങ്ങൾക്ക് ഇപ്പം എത്രയാലും ഞങ്ങള് റെഡി ക്യാഷ് തരാൻ റെഡിയാണ് കാരണം നമുക്ക് അവിടെ ഒരു അതിൻ്റെ തൊട്ടടുത്തും വീട് എല്ലാം നമുക്ക് ഇപ്പം ഒരു ഷോപ്പിംഗ് മോളും കാര്യങ്ങളും എല്ലാം റോഡ് സൈഡായത് കൊണ്ട് വരുന്നുണ്ട് അപ്പം അതിലേക്ക് നല്ലൊരു റിസോർട്ടിനുള്ള റിസോർട്ടും ഷോപ്പിംഗ് മോളും എല്ലാം കൂടെ ചേർന്നൊരു ഏരിയ അവിടെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടീം ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടുന്നൊരു നല്ലൊര് സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പളായിരുന്നു ഈ ഒര് സ്ഥലം കണ്ടത് അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു ഞാന് വിളിച്ചതിപ്പം എത്രയാലും നമ്മള് റെഡി ക്യാഷിന് തരാൻ റെഡിയാണ് ഒര് നാല് രൂപയ്ക്കാണെങ്കില് നമുക്ക് അത് ഇപ്പം തന്നെ എഗ്രിമെൻറ്റ് ചെയ്യാമായിരുന്നു അതിൻ്റെ അതെനിക്ക് മനസ്സിലായി ചേച്ചി പക്ഷേ എന്നാലും നമ്മളൊരു അഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലല്ലേ ഇപ്പം നാല് വെച്ചിട്ടാണെങ്കില് നാല് ലക്ഷത്തിനാണെങ്കില് നമുക്ക് ഇപ്പം തന്നെ അതെടുക്കാം ആ അപ്പം ചേച്ചി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നാലല്ല നാലരക്ക് തരാം എങ്കിൽ ഇപ്പം തരുവോ അത്

ഓക്കെ നാലരക്ക് ആ ഓക്കെ ചേച്ചി അപ്പം നാലരക്ക് ഇരുപത് സെൻറ്റ് ഞാന് വിളിച്ചോളാം നമുക്കെത്രയും വേഗം എഗ്രിമെൻറ്റെഴുതിക്കാമല്ലോ ഓക്കെ ശരി ഓക്കെ ഞാന് വിളി കോൺടാക്റ്റെയ്തോളാവേ താങ്ക്യൂ